കേരളത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന ഒരു കലാരൂപമാണ് കഥകളി എന്നുപറയുന്നത് കഥകളി പരമ്പരാഗതമായിത്തന്നെ മലയാളികൾ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു കലാരൂപമാണ് കഥകളിയിൽ പല പല രൂപങ്ങൾ കഥാ കളിക്കാരൻ അണിയാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ശിവൻ പാർവ്വതി ഭദ്രകാളി അങ്ങനെ സ്ത്രീ പുരുഷൻ അങ്ങനെ പല പല വേഷങ്ങൾ കലാകാരൻ കഥകളിയിൽ അണിയുന്നുണ്ട് പച്ച പൊട്ട് അങ്ങനെ കുറേ കുറേ ഒരുങ്ങുന്ന സാധനങ്ങളും കഥകളിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു കഥകളിയുടെ വസ്ത്രം മനോഹരമാണ് കഥകളി കാണാൻ കണ്ണിന് കൗതുകമാണ് കാഴ്ചക്കാരെ പിടിച്ചിരുത്തുന്ന അർത്ഥങ്ങളുള്ള ഗാനങ്ങളും എല്ലാം കഥകളിയിൽ അടങ്ങിയിരിക്കുന്നു സംസാരിക്കാതെ മുഖത്തിലെ ഭാവവ്യതാസങ്ങളിലൂടെയാണ് കഥകളി പ്രേക്ഷകരിലെ മനസ്സിൽ ഇടം പിടിക്കുന്നത് ചിലങ്കകൾ കഥകളിയിൽ ഉപയോഗിക്കുന്നുണ്ട് കുട്ടിക്കാലം മുതൽത്തന്നെ കഥകളിക്കാരൻ കഥകളി പഠിച്ചു തുടങ്ങുന്നു വലുതാവുമ്പോൾ എങ്കിലേ അതിൽ അതിൽ മുഴുകി അതിൽ അലിഞ്ഞുചേർന്ന് കഥകളിക്കാരന് കളിക്കാനാകാത്തുള്ളൂ ഒരാൾ തന്നെയും രണ്ടാൾ കൂടിയും കഥകളിയിൽ കളിക്കാറുണ്ട് ഒരാൾ ആൺവേഷവും ഒരാൾ പെൺവേഷവും കെട്ടാറുണ്ട് പിന്നെ കേരളത്തിൻ്റെ വേറൊരു പരമ്പരാഗത കഥ കലാരൂപമാണ് മാർഗംകളി എന്നുള്ളത് ക്രിസ്തീയ പാരമ്പര്യത്തിൽ വരുന്ന മാർഗംകളി പണ്ട് പുരാതനകാലം തൊട്ടേ കേരളത്തിൻ്റെ ക്രിസ്ത്യാനികൾ കൊണ്ടുനടക്കുന്ന ഒരു കലാരൂപമാണ് ആറ് പന്ത്രണ്ട് എന്നിങ്ങനെയാണ് അതിൽ വരുന്ന കളിക്കാരുടെ എണ്ണം ചട്ടയും മുണ്ടുമാണ് അവരുടെ വേഷം കുണുക്ക് മാല എന്നിവയൊക്കെ അവർ അലങ്കാരങ്ങളായി ശരീരത്തിൽ അണിയാറുണ്ട് മാർഗംകളി പാട്ട് എന്നാണ് അതിലുപയോഗിക്കുന്ന പാട്ടിൽ വിളിക്കുന്നത് നിലവിളക്ക് പന്ത്രണ്ട് സ്ത്രീകളുടെ ചുറ്റും പന്ത്രണ്ട് സ്ത്രീകൾ വട്ടത്തിൽ നിന്നിട്ട് അതിന് ചുറ്റും എന്ന തിരി വെച്ചാണ് അതിന് ചുറ്റുമാണ് സ്ത്രീകൾ ഈ കളി കളിക്കുന്നത് അങ്ങ് അതുപോലെത്തന്നെ വേറൊരു കളിയാണ് ചാക്യാർകൂത്ത് പല പല കളികളാലും കലാരൂപങ്ങളാലും കേരളം സമ്പന്നമാണ്